മലയാളമെന്ന് കേട്ടാൽ തന്നെ എല്ലാവരും മനസ്സിൽ വരുന്നത് കേരളം കേരളത്തിൽ ഏറ്റവും വലുത് മലയാളത്തിൽ മലയാളത്തിലെ മലയാളത്തിലെ മലയാളത്തിൽ തന്നെ എല്ലാവരും ചെയ്യുന്നതും എല്ലാ മലയാളം തന്നെ ഒരു മാതൃഭാഷ ആയിട്ട് അറിയപ്പെടുന്നതുമാണ് അതേപോലത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഏറ്റവും വലിയ ഏറ്റവും ഏറ്റവും വലിയ മാതൃഭാഷ മാതൃഭാഷ മാതൃഭൂമി ഭാഷയൊക്കെയാണ് മലയാളം മലയാളത്തിലെ ഏറ്റവും എന്തായിരുന്നു ചെയ്യുന്നതും മലയാളത്തിലെ ഏറ്റവും വലിയ നടൻ നടിമാരെന്ന് കേട്ടിട്ടുണ്ടലോ അതേപോലത്തെ റോൾ ആയിട്ട് എൻ്റെ സ്ട്രീറ്റിൽ റോൾ ആയിട്ട് മലയാളം എന്നു പറയുന്നത് അതാ അതൊരു തമിഴ് പെണ്ണാണ് അപ്പം തമിഴ് പെണ്ണായിട്ടും ഈ കേരളത്തിൽ വന്നു ജനിച്ചപ്പോൾ കുറേ കുറേ എനിക്ക് പുതിയ പുതിയ അനുഭവങ്ങളായിരിക്കും കിട്ടിയായിരുന്നു

ഈ ക്സ്യൻ തന്നെ ഗൂഗിൾ ട്രാൻസിറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്താണ് ഓരോരോ കാര്യങ്ങൾക്ക് ഓരോരോ ഇത് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഓരോരോ മാത്രം എൻ്റെ ഭാഷയെ നോക്കുമ്പോൾ മലയാളം എന്നു പറയുന്നത് ഒരു അടിപൊളി ഭാഷയാണ് അപ്പം എന്താണ് എനിക്ക് ശരിക്കും മലയാളം മിണ്ടാൻ പോലും അറിയത്തില്ല പക്ഷെ കേരളത്തിൽ എത്തിയപ്പോൾ തന്നെ എനിക്ക് മലയാളം പഠിക്കാനും വായിക്കാനും എഴുതാനും ഒക്കെ എനിക്ക് ചെറിയ ചെറിയതായിട്ട് കിട്ടിയായിരുന്നു അപ്പം ഓരോ ഈരോ ഓരോ ഓരോ കാര്യങ്ങൾക്കും മലയാളിക്ക് ഭയങ്കര ഇപ്പം ഒരു ബാങ്കിൽ പോയാലും ഒരു ബാങ്കിൽ പോയാലും

അപ്പം എന്താണ് മലയാളം എന്നു പറഞ്ഞാൽ അത് എനിക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് കൂടിയാണ് ഇഷ്ടപ്പെട്ട ഒരു മാതൃഭൂമി ഭാഷയാണ് അതിൻ്റെ അതിൻ്റെ ഇതിലാണ് നമുക്ക് മാതൃഭൂമിയിലേക്ക് വരുന്നതും ചെയ്യുന്നതും ഒക്കെ അപ്പോൾ ഭാഷ മലയാളം ഭാഷ പോലെ ഒരു ഒരു ഭാഷ കേരളത്തിൽ എങ്ങനെയാണ് വരുന്നതും എന്തൊക്കെയാണ് ചെയ്യുന്നതും എന്തൊക്കെയാണ് അതായത് മലയാളം മലയാള ഭാഷ മലയാളം ഇത് എന്തൊക്കെയാണ് ചെയ്തു വരുന്നതും മലയാളം എന്ന് എന്തൊക്കെയാണ് പറയാൻ വരുന്നതും എന്തൊക്കെയാണ് ചെറുപ്പം തൊട്ടേ നമ്മൾ അമ്മ ആ ഇ ഈ എന്നൊക്കെ പഠിക്കുന്നുണ്ടല്ലോ അപ്പം അതുപോലെ തന്നെ മലയാളത്തിൽ എന്തൊക്കെയാണ് റൂള് എന്തൊക്കെയാണ് വരുന്നത് ഈ റൂൾ ഓഫ് മലയാളം എന്നു പറഞ്ഞു ചോദിച്ചിട്ട് എൻ്റെ സ്റ്റേജ് എൻ്റെ സ്റ്റേറ്റിൽ മലയാളം എന്നു പറയുന്നത് ഒരു ഒരു ഒരു ഇതാണ് എന്താണ് ഇ മലയാളി എന്ന് പറയുമ്പോൾ തന്നെ മലയാളി എന്നു പറയുമ്പോൾ തന്നെ ഒരു എല്ലാവർക്കും മലയാളി എന്നു പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു മലയാളി മലയാള പെണ്ണ് കേരള പെണ്ണ് എന്നതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഉള്ളിലേക്ക് ഒരു അനുഭവം വരുമല്ലോ അതുപോലെ തന്നെ രസകരമായ ഒരു ഇതാണ് മലയാളം എന്നു പറഞ്ഞാൽ തന്നെ കേൾക്കാനും വായിക്കാനും കേൾക്കാനും വായിക്കാനും എഴുതാനും ഇതൊക്കെ നല്ല രസകരമായ വിഷയമാണ് മലയാളം അപ്പം എന്തെക്കെയാണ് ചെയ്യേണ്ടത് എന്തെക്കെയാണ് അപ്പം മലയാളം നമുക്ക് എന്തെക്കെയോ ഉപകാരം തരുന്നത് ഭാഷ തന്നെ നമുക്ക് എന്തൊക്കെയോ ചെയ്യുന്നത് ആ ഭാഷ തന്നെ നമുക്ക് തിരിച്ചറിയാം ആ ഭാഷ തന്നെ ഇയാൾ നമ്മൾ മിണ്ടുമ്പം തന്നെ മനസ്സിലാവും ഇയാൾ മലയാളമാണ് തമിഴാണ് അതുപോലെ തന്നെ എന്തൊക്കെയാണ് പറയാൻ വരുന്നത് നമുക്കും അത് ആദ്യം മനസ്സിലാകും